പണ്ടക്കെന്താണ് പറഞ്ഞാല് ഏകദേശം എല്ലാ തറവാട്ടിലും ഒരു ചെറിയ നെൽപാടമെങ്കിലുമുണ്ടാവും അതിന് വാല്യക്കാരും പണിക്കാരും നമ്മളുടെ വീട്ടില് നെല്ല് കുത്തലും അങ്ങനത്തെ പരിപാടികളൊക്കെയുണ്ട് ഇപ്പോള് പിന്നെ വീടുകളിലൊന്നും നെൽകൃഷിയൊക്കെ കുറവാണ് ആദ്യം നമ്മുടെ തറവാട്ടിൽ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോള് ഞങ്ങള് മക്കൾക്കൊന്നും ആർക്കും നെൽകൃഷി ഇല്ല നെൽകൃഷി എന്നു മാത്രമല്ല പൊതുവെ വേറെ കൃഷി ഇല്ലായിരുന്നു പിന്നെ ചീര വെണ്ടക്ക മുളക് അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ആദ്യത്തെ കന്നുകാലികളൊക്കെയാണ് ആദ്യമൊക്കെ കലപ്പ പാടം പൂട്ടിയിരുന്നത് ഇപ്പോള് പിന്നെ ട്രാക്റ്റര് വന്നില്ലേ അതുകൊണ്ട് ജോലികളൊക്കെ കുറച്ചൊക്കെ എളുപ്പമാണ് പിന്നെ വീടുകളും കുറഞ്ഞും ചെയ്തു എന്നിട്ടും നമ്മുടെ നാട്ടില് പാടങ്ങളൊക്കെ കുറവാണ് നമുക്കാവശ്യമുള്ള അരിയൊക്കെ വേറെ സ്ഥലത്തുനിന്നാണു വരുന്നത് അതൊക്കെ പരമ്പരഗതാമായിട്ടുള്ള എളുപ്പം ഒരുപാട് മാറ്റങ്ങള് വന്നു പിന്നെ എല്ലാവരും കൃഷി ചെയ്യന്നതിനേക്കാട്ടില് കൂടുതല് വേറെ ജോലികള് ചെയ്യാനാണ് താൽപ്പര്യം കാണിക്കുന്നത്